ഒരു പത്തു വർഷം മുമ്പ് പത്തു പതിനഞ്ച് വർഷം മുമ്പ് ഭയങ്കര പിന്നെ വരൾച്ച അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പിന്നെ പഞ്ചായത്ത് കിണറുണ്ടാവും ഒരു അഞ്ചാറ് വീട്ടുകാർ വെള്ളം എടുക്കുന്നുണ്ടാവും വേനൽക്കാലം ആവാൻ തുടങ്ങി മഴക്കാലം വന്നാലും അതായത് മോട്ടറ് വച്ചിട്ടുണ്ടെങ്കിലും സാമർഥ്യം ഉള്ളവർ സാമർഥ്യം ഉള്ളവർ വേഗം വേഗം വന്ന് വെള്ളം എടുത്തിട്ടുപോവും അല്ലാത്തവർക്ക് വരാൻ പറ്റില്ലല്ലോ ഈ രാവിലെ പിന്നെ ഒരു വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉള്ള പാത്രം മുഴുവനും ടാങ്ക് നിറച്ച് വച്ചാൽ കഴിഞ്ഞു അപ്പം വന്നിട്ടുണ്ട് ഇല്ലായെന്നല്ല ഉണ്ട് പക്ഷെ ഇപ്പോഴില്ല ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അതായത് വെള്ളം ജലം ജലനിധി അങ്ങനെ ജപ്പാൻ കുടിവെള്ളം പോലുള്ള പദ്ധതികൾ വന്നതോടെ നമുക്ക് പൈപ്പ് വെള്ളം വരാൻ തുടങ്ങി പൈപ്പുവെള്ളം വരാൻ തുടങ്ങിയതുകൊണ്ട് നമ്മുടെ മറ്റു വെള്ളം അതായത് കിണർ കിണർ സ്വയം കുഴിക്കുന്നതും കുഴൽക്കിണറുകളും അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം ഇപ്പം അനുഭവിക്കുന്നില്ല ആദ്യം ആദ്യം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്